ഹലോ ഇത് ആ ഞാൻ കുറച്ച് ബുക്ക് എന്തോ ആ ഞാൻ എന്റെ പേര് അഹല്യാന്നാണ് ആ എനിക്ക് ഈ ലൈബറീൽ ഒരു മെമ്പർഷിപ്പെടുത്ത് കുറച്ച് ബുക്സൊക്കെ അതെന്താന്നേ അതിന്റെ പ്രൊസീജ്യറ് എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് അറിയില്ല ഒന്ന് പറഞ്ഞ് തരാമോ ആ ആ അ

എല്ലാ ഭാഷയിലുള്ള പുസ്തകങ്ങളും അവൈലബിളാണോന്നേ ആ ആണല്ലേ ആ അത് കുഴപ്പമില്ല ഞാൻ നേരിട്ട് വന്ന് ചെയ്തോളാം അപ്പം ഐ ഡീക്കാഡും ആധാർക്കാഡും പിന്നെന്താ നമ്മൾ വേറെ ഇങ്ങനെ ബുക്ക് ബുക്ക് ചെയ്യണത് എത്ര രൂപയാകുമെന്നേ നമുക്ക് ഇങ്ങനെ മെമ്പർഷിപ്പെടുക്കുന്നതിന് അതോ മാസം നമ്മൾ ഓരോ ബുക്ക്സ്സ് എടുത്ത് വായിക്കുന്നതിന് അനുസരിച്ചാണോ റെൻറ്റ് അ ആണല്ലേ ആ ആ അവിടെ നമുക്ക് തന്ന് വിടുമോ അതോ നമുക്ക് അവിടെത്തന്നെ ഇരുന്ന് വായിക്കണമെങ്കിൽ അവിടെത്തന്നെ ഇരുന്ന് വായിക്കാൻ പറ്റുമോ

ഉണ്ടല്ലേ ആ എത്ര ദിവസം കഴിഞ്ഞ് നമുക്ക് തിരിച്ച് തരണം അത് വായിച്ചിട്ട് നമ്മൾ കൊണ്ട് തരണോ അതോ ആ ആ അപ്പം അപ്പം ഞങ്ങൾക്ക് അത്രയും സമയം കൊണ്ട് വായിച്ച് കഴിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യാന് പറ്റണത് അപ്പം തിരിച്ച് തരാൻ പറ്റിയില്ലെങ്കിലോ ആണല്ലേ ആ ആ ഓക്കെ ഓക്കെ ആ ഒരു മെമ്പർഷിപ്പൊണ്ടെങ്കിൽ നമുക്ക് രണ്ട് പുസ്തകങ്ങൾ വെച്ച് തരുമോ ആ ആ ഒരു നമുക്ക് മെമ്പർഷിപ്പൊണ്ടെങ്കിലേ നമുക്ക് ഒരേ സമയത്ത് രണ്ട് ബുക്ക് ബുക്സ്സ് വെച്ച് തരുമോ വായിക്കാൻ വേണ്ടി അതോ ഓരോ ഓരോ ബുക്സാണോ തരുവുള്ളൂ

ആ ആണല്ലേ ആ അതേ എന്റെ മോളേ അവൾ പഠിച്ചോണ്ടിരിക്കുക അപ്പം അവൾക്ക് പ്രൊജെക്റ്റക്കെ ചെയ്യാൻ വേണ്ടി എപ്പം പറഞ്ഞ് വിടുന്നു അനുസരിച്ച് അപ്പം അപ്പം ആവശ്യമായിട്ടുള്ള ബുക്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് തരാൻ പറ്റില്ലേ ആ ആണല്ലേ ആ ആ എന്നാൽ ഓക്കെയാട്ടാ ഞാൻ മെമ്പർഷിപ്പിനുള്ള എല്ലാം ആയിട്ട് വന്നേക്കാവേ ഓക്കെ താങ്ക് യൂ ആ ഓക്കെ നേരിട്ട് വന്ന് എടുത്തോളാം മെമ്പർഷിപ്പെടുത്തോളാം ഓക്കെ ഓക്കെ താങ്ക് യൂ വേ ആ ഓക്കേട്ടാ ഓ വന്നോളാം മ്